അടുക്കള പത്രങ്ങളായിട്ട് മൺപാത്രങ്ങളാണ് കൂടുതല് ഞാൻ ഉപയോഗിക്കുന്നത് അത് മൺപാത്രങ്ങള് കൊണ്ട് ഒരു ദോഷവും ഇല്ല ആരോഗ്യ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ അലുമിനിയം പാത്രങ്ങള് ഉപയോഗിച്ചാല് ഓരോ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പണ്ട് കാലത്തെ മൺപാത്രങ്ങളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് പിന്നെ പിച്ചള ഓട് അതും അതിന് പണ്ട് കാലത്ത് ഉപയോഗിച്ചത് ഇപ്പോള് അതൊക്കെ മാറി കുക്കറും അല്ലാത്ത ഉപകരണങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ശരീരത്തിന് ഹാനികരമാണ് അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ചട്ടി കലം അങ്ങനെ മൺപാത്രങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ ഇപ്പം ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിനൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാകുക മൺപാത്രത്തിലുണ്ടാക്കുമ്പോഴാണ് അല്ലാത്ത പാത്രങ്ങളുപയോഗിക്കുമ്പോൾ അയിൻ്റെതായൊരു രുചിക്ക് ഒക്കെ ഒരു വ്യത്യാസം വരുന്നുണ്ട് ദിപ്പഴത്തെ കാലത്ത് കൂടുതല് രോഗങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് മൺപാത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്